നമ്മുടെ കേരളത്തിലെ രാഷ്ട്രീയം എന്നൊക്കെ പറയുമ്പം ഇപ്പം നമ്മള് രാവിലെ ടീവി തുറന്നാൽ തന്നെ കാണാം ഒന്നില്ലങ്കിൽ നമ്മ ഏതെങ്കിലും രണ്ട് പാർട്ടികള് തമ്മിലടി അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ ഒരു കേസിൻ്റെ കാര്യത്തില് പറഞ്ഞിട്ട് അടി അങ്ങനല്ലങ്കിൽ ഒരു ചെറിയ കേസിനൊക്കെ ആയിരിക്കും ചിലപ്പം ഒരാളെ വെട്ടി കൊല്ലുക അങ്ങനെയുള്ള കാര്യങ്ങളും ഉണ്ട് പിന്നേന്ന് പറയുമ്പോൾ ഈ രാഷ്ട്രീയക്കാര് ആ അവരുടെ സ്വത്തുക്കള് അതെന്നൊന്നും അവര് പുറത്ത് പറയത്തില്ല അങ്ങനെയുള്ള കാര്യങ്ങളക്കെ ഉണ്ട് ഈ രാഷ്ട്രീയക്കാരില് പാതി പേരെന്ന് പറയുമ്പം നല്ലവരായിരിയ്ക്കും പാതി പേരെന്ന് പറയുമ്പം ഒരുമാതിരി കുറ്റവാളികളെ പോലെ അങ്ങനേക്കെ സംസാരിക്കുന്ന പലരെ ഒക്കെയാണ് ഉള്ളത് പിന്നേന്നൊക്കെ പറയുമ്പം നമ്മൾ ഈ രാവിലെ ടീവി തുറക്കുമ്പോൾ തന്നെ കാണാം കുറെ പേരുടെ എന്തേലുമൊക്കെ ഇതേപോലെ കേസുകളിങ്ങനെ കുത്തി പൊക്കുന്നതും അങ്ങനെ ഓരോരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് ഈ ഈര് പാർട്ടി എന്നൊക്കെ പറയുമ്പം ചിലരത് നല്ല രീതിയ്ക്ക് നോക്കുന്നവരുണ്ട് ചിലര് അതിൻ്റെ കൂടെ ഓരേ പണമുണ്ടാക്കുന്നു കുറെ സ്വത്തുക്കളുണ്ടാക്കാ അങ്ങനെ നല്ലതും ചീത്തയായിട്ട് അങ്ങനെ ഉള്ള കാര്യങ്ങളക്കെ ഉണ്ട് പിന്നേ അങ്ങനേന്നക്കെ പറയുമ്പം ഈ രാഷ്ട്രീയം കൊണ്ട് എത്ര പേര് പലരും ചെറിയൊരു ചെറിയൊരു കേസിനായിരിക്കും ചിലപ്പോൾ ചാവുന്നത് അങ്ങനെയുള്ള രക്തസാക്ഷി ആവുന്നു അങ്ങനൊക്കെ ഉണ്ട് പല രാ പല പാർട്ടികളും അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലടി കൂടുന്നു അങ്ങനെ പല കേസുകളക്കെ ഉണ്ട്